ഞങ്ങളുടെ പ്രദേശത്ത് പരമ്പരാഗത കളികൾ ഒരുപാടുണ്ട് ഉദാഹരണമായി കക്ക് കളി ഒളിച്ചുകളി തൊട്ടുകളി വള്ളംകളി കസേരകളി പുലിക്കളി ഒളി കൊത്തകല്ല്കളി കള്ളനും പോലീസും എയർ പന്ത് അങ്ങനെ ഒരുപാട് കളികളുണ്ട് അതിൽ ഒളിച്ചുകളി എത്ര പേര് എത്രപേര് കളിക്കാനുണ്ട് എന്നു വച്ചാല് ആളുടെ എണ്ണം നോക്കി ഒരാൾക്ക് പത്ത് എന്ന രീതിയിൽ എണ്ണം വച്ചിട്ട് അഞ്ച് ആളാണെന്നു ഉണ്ടെങ്കില് അതില് അമ്പത് അന്നേ എണ്ണുന്ന ആള് അൻമ്പത് വരെ എണ്ണും ബാക്കിയുള്ളവരൊക്കെ ഒളിച്ചു നിൽക്കും എന്നിട്ട് ആ ഒളിച്ച് നിൽക്കുന്നവരൊക്കെ കണ്ട് പിടിക്കലാണ് അങ്ങനെ ക ക കണ്ടുപിടിച്ച് ആദ്യം കണ്ടുപിടിച്ചിട്ട് അവർക്ക് സാറ്റിടുന്ന ആളായിരിക്കും അടുത്ത പ്രാവശ്യം എണ്ണു എണ്ണുന്ന ആള് അതുപോലെ തന്നെ തൊട്ട് കളി ഒരാൾ തൊടാ തൊടാനാവും ബാക്കിയുള്ളവരൊക്കെ ഓടും അവരൊക്കെ ഓടിച്ചിട്ട് തൊടലാണ് തൊട്ടുകളി അതിൽ ആദ്യം തൊടുന്ന ആളായിരിക്കും പിന്നീട് അടുത്ത കളിയിൽ മറ്റുള്ളരെ തൊടാൻ വേണ്ടി ഓടുന്നത് പിന്നെ കസേരകളി എന്നു പറഞ്ഞാല് അഞ്ച് ആൾക്കാരാണ് കളിക്കുന്നതെങ്കില് കസേര ആറെണ്ണം വച്ചിട്ടാണ് കളിക്കുക എന്നിട്ട് മ്യൂസിക് എന്തേലും വച്ചിട്ട് അതിനു ചുറ്റും നമ്മൾ ഓടും എന്നിട്ട് മ്യൂസിക് നിർത്തുമ്പോൾ ആറു പേരിൽ അഞ്ച് ആൾക്കാര് കസേരയിൽ ഇരിക്കലാണ് ചെയ്യാറ് അതിൽ ഇരിക്കാത്ത കസേര കിട്ടാത്ത ആള് ഔട്ട് ആകുകയും ചെയ്യും അങ്ങനെ ആ കളി രസകരമാകുവോളം കളി തുടർന്നു കൊണ്ട് ഇരിക്കും അതുപോലെ തന്നെ കൊത്ത കല്ല് കളി എന്നു പറഞ്ഞാല് നമ്മൾ അഞ്ച് കല്ലുകൊണ്ടും കളിക്കും അതേപോലെ ഏഴു കല്ല് വച്ചിട്ടും കളിക്കും അത് ഓരോ കല്ലു വീതം ഒരായിര മുര എന്നു പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഓരോ കല്ല് കൊത്തി എടുക്കും പിന്നീട് ഈ രണ്ട് കല്ല് പിന്നെ മൂന്ന് കല്ല് അങ്ങനെ ആണ് ആ കളി കളിക്കുന്നത് അങ്ങനെ ഒരുപാട് കളികള് ഈ ഓരോ കളിക്കും ഓരോ ഇതിനായിട്ട് പ്രത്യേകതകളും അതിൻ്റെതായിട്ടുള്ള രസങ്ങളും ഉണ്ട്